വയനാട് ജില്ലയിലെന്ന് വെച്ചാൽ ജനപ്രിയമായിട്ടുള്ള വിനോദ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് അതുപോലെ ഫാൻ്റം റോക്ക് ഗോംഗോ തിരുനെല്ലി ക്ഷേത്രം അങ്ങനെ ഒരുപാട് ഉണ്ട് പൂക്കോട് ലെയ്ക്ക് പിന്നെ അതുപോലെ പിന്നെ സൂജിപ്പാറ പിന്നെ കുറുവ ദ്വീപ് അങ്ങനെയുള്ള ഒരുപാടുണ്ട് സ്ഥലങ്ങളുണ്ട് വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട് പിന്നെ ജനപ്രിയമായ കായികോംന്ന് അതായത് പ്രാദേശിക കായികം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏ കൂടുതൽ ഫുട്ബോളൊക്കേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടമാണ് ഇപ്പോൾ മഡ് ഫുട്ബോള് അങ്ങനെ മഴക്കാലൊക്കെ വന്നിണ്ടേൽ മുഡ് ഫുട്ബോൾ ഉണ്ടാകും അല്ലാത്ത സമയത്ത് ഒരുപാട് ടൂർണമെൻ്റുകളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ ക്രിക്കറ്റിന് ആണെങ്കിലും ഉണ്ടാകും ക്രിക്കറ്റിനേക്കാളും കൂടുതലും ഫുട്ബോളാണ് നമുക്കിവിടെ കൂടുതലും വയനാട്ടിൽ ടർഫൊക്കെ കെട്ടിയിട്ട് ഒരുപാട് ആൺകുട്ടികൾ കളിക്കുന്നേയൊക്കെ കാണാറ് കൂടുതലും ഫുട്ബോളാണ് പിന്നെ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും അതുപോലെ പിന്നെ ഇവിടുന്നൊക്കെ സെലക്ട് ആയിട്ട് ഒരുപാട് പേര് പിന്നെ ഇന്ത്യൻ ക്രിക്കെ ഇന്ത്യൻ ഫുട്ബോള് ടീമിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഉള്ളതാണ് വയനാട്ടിലെ ജനപ്രിയമായ പ്രാദേശിക കായിക വിനോദങ്ങൾ